നമുക്ക് അറിയാവുന്ന ഭാഷയെന്ന് പറഞ്ഞാല് സാമാന്യം ഇംഗ്ലീഷ് അറിയാം ഹിന്ദി അറിയാം സംസാരിക്കാന് പിന്നെ മലയാളം നല്ലത് പോലെ സംസാരിക്കാനറിയാം മറ്റു ഭാഷകളുമായിട്ട് മലയാളത്തെ താരതമ്യം ചെയ്യും ചെയ്യാൻ പറ്റും കാരണം എല്ലാവർക്കും പെട്ടന്ന് പഠിക്കാൻ പറ്റിയൊരു ഭാഷയല്ല മലയാളം അതേസമയം മലയാളികൾക്ക് പിന്നെ ഏത് ഭാഷയും പെട്ടെന്ന് വഴങ്ങുകയും ചെയ്യും പിന്നെ എന്തുവാണ് ഇച്ചിരി ഭയങ്കര എന്താ പറയുന്നത് പ്രഹ എല്ലാവർക്കും പഠിക്കാൻ പ്രയാസമായൊരു ഭാഷയാണ് മലയാളം മറ്റു ഭാഷകളെ സംബന്ധിച്ച് അതിൻ്റെ ഉച്ചാരണ ശൈലികളും ഒക്കെ മറ്റു ഭാഷകളിൽ നിന്ന് വിപരീതമാണ് അതേസമയം മലയാളികൾക്കാണേലും മറ്റു ഭാഷകള് പെട്ടെന്ന് പഠിക്കുകയും ചെയ്യാം കാരണം അതുപോലെ ടഫ് ആയ ഭാഷയാണ് മലയാളം മലയാളം സംസാരിക്കുന്നവർക്ക് മറ്റ് ഭാഷകള് പെട്ടെന്ന് സംസാരിക്കാൻ പ പറ്റുകയും ചെയ്യും മലയാളത്തിൻ്റെ പ്രത്യേകതയെന്നു പറഞ്ഞാല് അതിൻ്റെ എന്തുവാ പറഞ്ഞത് പ്രൊനൗൺസിയേഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പ്രൊനൗൺസിയേഷൻ ഉച്ചാരണം വളരെ ഇച്ചിരി പ്രയാസവമുള്ളതാണ് എല്ലാവർക്കും വഴങ്ങുന്നതല്ല പിന്നെ എല്ലാ ഭാഷക്കാർക്കും മലയാളം പഠിക്കാം അതുകാരണം പെട്ടെന്നു പഠിച്ചില്ലേലും താരതമ്യേന പതുക്കെ പതുക്കെ പഠിച്ചു അതുപോലെ അല്ലെ നമ്മുടെ നാട്ടിൽ ജോലിക്ക് വരുന്ന ബംഗാളികളൊക്കെ ഇപ്പം മലയാളിക മലയാളം പറയുന്നില്ലേ കുറെ നാളുകൊണ്ട് അവരും പഠിച്ചെടുക്കും പിന്നെ എന്തുവാ പറഞ്ഞത് അവരെ നല്ല സംസാരിക്കാനും നമ്മുടെ സംസ്കൃത ഭാഷയുടെ ദേവഭാഷയായിട്ട് സംസ്കൃതത്തോട് മല്ലടിക്കുന്ന ഒരു ഭാഷയാണ് മലയാള ഭാഷയും അന്നേരം മലയാളമെന്ന് പറഞ്ഞാല് ഇപ്പളത്തേ മലയാളം സംസാരിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാലൊരു ഭാഗ്യമാണത്